പിന്നെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള പ്രധാന സാംസ്കാരിക വ്യത്യാസങ്ങള് എന്നു പറയുമ്പോള് പ്രത്യേക നമുക്ക് കാണാന് കഴിയുന്നത് അവരുടെ ഭാഷയില് ആയിരിക്കാം പിന്നവരുടെ ഭക്ഷണ രീതിയിൽ അവരുടെ വസ്ത്രത്തിൽ അതുപോലെ തന്നെ കാലാവസ്ഥ അത് വളരേയധികം പ്രത്യേകതയുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നു പറയുന്നത് അതുപോലതന്നെ രാഷ്ട്രീയ പരമായിട്ടുള്ളതും നമ്മുടെ നോര്ത്ത് ഇന്ത്യന്സിന്റേയും പിന്നെ ഞാൻ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയും തന്നെ സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള പ്രധാന സാംസ്കാരിക വ്യത്യാസങ്ങള് പെട്ട ഒന്നാണ് ഈ രാഷ്ട്രീയപരമായ രീതിയില് ഇടപെടലുകളും അതുപോലതന്നെ സാക്ഷരത സാക്ഷരതയില് നമ്മുടെ അതും പല രീതിയിലുള്ള വ്യത്യാസങ്ങള് നമുക്ക് കാണാന് സാധിക്കും അതുപോലെതന്നെ ഭൂഘടന ഭൂഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആന്നെ കാലാവസ്ഥ വ്യതിയാനം കൂടുതൽ മഴ ഉള്ള സ്ഥലങ്ങളുണ്ട് കൂടുതൽ മഴ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് അതുപോലെ ഉരുള്പൊട്ടാന് സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം പലപല സംസ്ഥാനങ്ങളില് വ്യത്യസ്തമായിട്ടിരിക്കുന്നു അതുപോലെതന്നെ നമുക്ക് അവസരങ്ങള് അവസരങ്ങള് കിട്ടുകയെന്ന് പറയുഞ്ഞാൽ ജോലി തൊഴില്പരമായ നമുക്ക് അവസരങ്ങള് കിട്ടുന്നതും അതും പിന്നെ അതുതന്നെ സോഷ്യല്പരമായിട്ട് കിട്ടുന്ന ഇതും അവിടെ നോര്ത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും തമ്മിൽ നന്നായിട്ട് വ്യത്യാസമുള്ള ഒരു സംഭവമാണ് അതിൽ തന്നെ തികച്ചും നമുക്ക് ആ വ്യത്യസ്തതകൾ നമുക്ക് കാണാന് പറ്റുന്നതാണ് കാരണം പിന്നെ ഓരോ രീതിയിലും ഓരോ ജനങ്ങളിലുള്ള വ്യത്യാസം നമുക്ക് കാണാന് സാധിക്കും